എന്റെ വീടിന്റടുത്തുള്ള അമ്പലാണ് തിരുനെല്ലി ഞാന് ഒരുപാട് വട്ടം പോയിട്ടുണ്ട് വിനോദസഞ്ചാരികള് കാണാന് വരേണ്ട ഒരു സ്ഥലം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം ഒരുപാട് ഐതീഹ്യങ്ങള് ഉണ്ട് അവിടെ വെള്ളം എത്തുന്നത് പോലും അങ്ങനെയൊരു പാത്തി വഴിയാണ് അതും മലേന്റെ മുകളില് നിന്നാണ് അവിടെനിന്ന് നോക്കിയത് നമുക്ക് കാണാന് കഴിയുന്നത് ബ്രഹ്മഗിരി മലയാണ് അതിന്റെ മുകളിലാണ് നമ്മുടെ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ളതാണ് കല്പണികൊണ്ട് തീര്ത്ത അമ്പലമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കുറച്ച് മാറ്റങ്ങള് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എങ്കില് പോലും വിഷ്ണുവിന്റെ പാദവും പാപനാശിനിയും അങ്ങനെ എല്ലാം കാണേണ്ട ഒരു ഇതാണ് പോകുന്ന സ്ഥലങ്ങള് ആയിക്കോട്ടെ കാടുനിറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ടുതന്നെ അമ്പലത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്രമാത്രം പറയാന് ഉണ്ട് ഞാന് ഒരുപാട് പോയിട്ടുണ്ട്